ഹലോ ഓ ക്യാബ് ഏജ് ഏജൻസിയല്ലേ ആ ഞാനേ ഒരു ക്യാബ് ബുക്ക് ചെയ്യാൻ വേണ്ടി വിളിച്ചതായിരുന്നു ആ എനിക്കൊന്ന് എറണാകുളം വരെ പോകാൻ വേണ്ടിയിട്ടായിരുന്നു ആ ഹാ ഹാ ഇല്ല അധികം ആൾക്കാരൊന്നുമില്ല എനിക്കൊരു ചെറിയ വണ്ടി മതി ഒരു എന്താ പറയുക ഒരു സ്വിഫ്റ്റോ അങ്ങനത്തെ എന്തെങ്കിലും മതി ആ അതെ അതെ കുറച്ച് നല്ല വണ്ടി വേണം കാരണം അത്രയും ദൂരം പോകേണ്ടതല്ലെ ഞാൻ ട്രെയിനൊന്നും പോകാണ്ട് വണ്ടിയിൽ പോകുന്നത് എന്താന്ന് വച്ചാൽ നല്ല രീതിയിലുള്ള ഒന്ന് യാത്രയൊക്കെ ആസ്വദിച്ച് പോകാൻ വേണ്ടിയിട്ടായിരുന്നു ആ അതെ അതെ എൻ്റെ കൂടെ പിന്നെ ഒരു നാലാളുണ്ടാകും നമുക്ക് നാലാൾക്ക് സ്വിഫ്റ്റില് പോയികൂടെ ആ ഓക്കെ ആ ഹാ ആ വണ്ടി മാത്രം പോര നമുക്ക് ഡ്രൈവറും വേണം കാരണം എന്താന്ന് വച്ച് കഴിഞ്ഞാല് അത്രയും ദൂരം ഓടിക്കുമ്പോൾ നമുക്ക് ക്ഷീണവും കാര്യങ്ങളൊക്കെ വന്ന് കഴിഞ്ഞാൽ വേറെ വണ്ടി ഓടിക്കാൻ വേറെ ആരുമില്ല ഞാൻ വണ്ടി ഓടിക്കുന്നതാണ് പക്ഷെ എന്നാലും വേറെ ബാക്കിയുള്ളവർക്കൊന്നും വണ്ടി ഓടിക്കാനറിയില്ല അപ്പൊരു ഡ്രൈവറ് എന്തായാലും ഇരുന്നോട്ടെ കുഴപ്പമില്ല ആ ഓക്കെ ഓക്കെ സമയം രാവിലെ ഒരു എട്ട് മണിക്ക് എന്നാൽ നാളെ നാളെ വന്നാൽ മതി ഒരു നാളെ നാളെ അതെയതെ എട്ടു മണിയാകുമ്പോൾ വീടിൻ്റെ അവിടെ വന്നാകെ മതി ഓക്കെ ഓക്കെ അങ്ങനെയാണെങ്കില് നാളെ വന്നാൽ മതി കെട്ടോ ഇനി വിളിച്ച് ഓർമ്മിപ്പിക്കണ്ടല്ലോ ഓക്കെ ഓക്കെ നാളെ വന്നാൽ മതി